ഹലോ രജിത ഞാൻ അമൃതയാണ് സംസാരിക്കുന്നത് എങ്ങനെയുണ്ട് പുതിയ സ്ഥലത്തെ താമസമൊക്കെ സെറ്റായോ എട്ടന് ജോലിക്ക് കയറിത്തുടങ്ങിയോ നിങ്ങളിപ്പോള് അവിടെ ഭക്ഷണം പുറത്തുനിന്നാണോ വാങ്ങുന്നത് അപ്പോള് ഇനി എന്താണ് ഗ്യാസ് കണക്ഷൻ എടുക്കാനാണോ അതോ കറണ്ട് അടുപ്പ് ഉപയോഗിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ ഗ്യാസ് കണക്ഷൻ പലതുമുണ്ടല്ലോ ഇപ്പോള് ഭാരതിൻ്റെയുണ്ട് ഇന്ത്യൻ്റെയുണ്ട് നിങ്ങളേത് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ അഭിപ്രായത്തില് ഭാരതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇന്ത്യനാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പ നമ്മളത് ഭാരതിന്റെ ഒരു കുറ്റിയും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഒരു കുറ്റിയും ഉപയോഗിക്കുമ്പോള് ഭാരതിനെക്കാളും കുറച്ചും കൂടി ദിവസം കൂടുതലായിട്ട് നില്ക്കുന്നത് ഇന്ത്യൻ ഉപയോഗിക്കുമ്പോഴാണ് മാത്രമല്ല നമുക്ക് പറ്റുന്ന താങ്ങാൻ പറ്റുന്ന ഒരു വിലയാണ് ആ സിലിണ്ടറിന്റെ ഒരു കുറ്റിക്കുള്ളത് ഇനിയിപ്പോള് ഒരു കുറ്റി കഴിഞ്ഞു നമ്മൾ അടുത്തത് ഓർഡര് ചെയ്യുകയാണെങ്കില്പ്പോലും നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എത്തുന്നത് ഇന്ത്യനാണ് മാത്രമല്ല ഇപ്പോള് നമ്മുടെ ഇന്ത്യന് പറയുന്നതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എൽ പി ജി കണക്ഷൻ എടുക്കാനായിട്ട് പറ്റും ഗ്യാസ് കണക്ഷനായിട്ട് ആധാറിൻ്റെ വിശദാംശങ്ങള് മാത്രം കൊടുത്താല് മതി വേറെയൊരു രേഖയും നമുക്ക് നൽകേണ്ടതില്ല ഗ്യാസ് കമ്പനികള് പലതരത്തിലുള്ള രേഖകള് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എൽ പി ജി കണക്ഷൻ എടുക്കുന്നവർക്ക് അത് ഭയങ്കരം ബുദ്ധിമുട്ടായിട്ട് വരും പക്ഷേ ഇന്ത്യൻ്റെ ഈയൊരു ആധാർ കാർഡ് മാത്രം കൊടുത്താല് മതിയെന്നുള്ളൊരിതുകൊണ്ട് തന്നെ അത് പലയാളുകൾക്കും സൗകര്യപ്രദമാകുന്നുണ്ട് ഇപ്പോള് പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന തൊഴിലാളികൾക്ക് അഡ്രസ് പ്രൂഫ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകില്ല അപ്പോള് ഇങ്ങനെ വരുമ്പോള് അവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആധാര് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ത്യൻ്റെ ഇതെടുക്കാൻ പറ്റും എന്തായാലും അത് ഇന്ത്യന് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ശരിയെടി താങ്ക് യൂ